വയലിലെ കൊയ്ത്തിനു ശേഷം സമൃദ്ധി കൊണ്ടാടാനും പ്രകൃതിയെ ആധ ആരാധിക്കാനും പ്രകൃതി തന്ന വിളുവെടുപ്പിന് സന്തോഷത്തിൽ എല്ലാത്തിനുമായിട്ട് പുത്തരി ഉത്സവം എന്ന് പറയുന്ന മനോഹരമായ ഒരു ചടങ്ങ് നമ്മൾ ആചരിക്കാറുണ്ട് പുത്തരി ഉത്സവത്തിന് നമ്മൾ കിട്ടിയ നെല്ല് അമ്പലങ്ങളിലും ആരാധന ആരാധനയാലങ്ങളിലും എല്ലാം ദൈവത്തിന് കാണിക്ക വെക്കുകയും അതുപോലെത്തന്നെ അതിൻ്റെ ഒരുപാട് പൂജകളും കൊണ്ടാടിവരുന്നുണ്ട് ഇത് പാരപരാഗതമായി തുടർന്ന് വരുന്ന ഒരു ആഘോഷമാണ് കൊയ്ത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത് ഇതിലൂടെ നമ്മൾ പ്രകൃതിയോട് ലഭിച്ചതിൽ നന്ദി പറയുകയും അടുത്ത വർഷത്തെ കൊയ്ത്തിന് നല്ല രീതിയിലുള്ള സമൃദ്ധി ലഭിക്കാനും വേണ്ടീട്ടാണ് ഏതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഉത്സവം ആചരിക്കുന്നതിലൂടെ കർഷകരുടെ സമ്പത്തും അതുപോലെത്തന്നെ അവർക്ക് ഐശ്വര്യവും അടുത്ത വർഷത്തെ കൊയ്ത്ത് നല്ല രീതിയിൽ വരാനും എല്ലാമാണ് ഇവർ ഈ ഒരു ഇത്തരത്തിൽ ഒരു ആചാരം കൊണ്ടാടുന്നത്